നമസ്കാരം ഞാൻ അശോക് ഞാൻ ഒരു ദിവസം മൂന്ന് തവണയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഒരു കേരളീയനായതുകൊണ്ട് തന്നെ അരി ആഹാരമാണ് ഞാൻ അധികവും കഴിക്കുന്നത് ഞാൻ പ പലതരം പച്ചക്കറികളും ധാന്യങ്ങളും മും മാംസവും എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുവുണ്ട് ഒരു ആരോഗ്യപരമായ ജീവിതത്തിന് വേണ്ടി നാം സമീക്രിത ആഹാരം കഴിക്കേണ്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിന് കാരണം ഇത്തരം ഭക്ഷണങ്ങളിൽ നിന്നാണ് നമുക്ക് വിറ്റാമിനുകളും പ്രോട്ടീനുകളും നമുക്ക് ല ലഭിക്കുന്നത് ഇത്തരം വിറ്റാമിനുകളും പ്രോട്ടീനുകളുമാണ് നമ്മുടെ ജീവൻ നിലനിർത്താനായ വേണ്ട ചില ഘടക വസ്തുക്കൾ അപ്പോൾ നമ്മൾ നമ്മുടെ ആഹാരത്തിൽ കഴിവതും ഇത്തരം സാധനങ്ങൾ ലഭിക്കുന്ന പച്ചക്കറികളോ മാംസമോ ധാന്യങ്ങളോ ഉൾപ്പെടുത്തേണ്ടതാണ്